നമ്മള് വീട്ടില് സാധാരണ പാനീയം എന്നുപറയാണെങ്കിലേ സർബത്തുണ്ടാക്കാറുണ്ട് നാരങ്ങാവെള്ളം പിന്നെ സ്ക്വാഷ് അങ്ങനത്തെ സാധനങ്ങൾ ഈ സ്ക്വാഷും കാര്യങ്ങളും ഒക്കെ പൊടിയൊക്കെ പുറത്തു നിന്ന് മേടിച്ചിട്ടാണ് സാധാരണ ഈ ടാങ്ക് പോലത്തെ സാധനങ്ങൾ ഒക്കെ ഉണ്ടാകും അപ്പോൾ അതിൻ്റെയൊക്കെ പൊടി പൊടിച്ചു ജസ്റ്റ് വെള്ളത്തിൽ കലക്കി ലേശം പൻസാരയും ഇട്ടു കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും പിന്നെ സർബത്ത് ഉണ്ടാക്കുന്ന അറിയുമ്പോൾ അതിൻ്റെ നമ്മളെ കൂട്ടും കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ കുറെ വീട്ടില് അതിൻ്റെ കച്ചവടം പോലെ കച്ചോ ആ അതായത് ചെറിയ രീതിയിലുള്ള ഇത് ഉണ്ടാക്കിട്ട് അവര് ഈ എന്താ പറയുക ഈ സർബത്തൊക്കെ ഈ കൂട്ടുംകാര്യങ്ങളുമൊക്കെ വെച്ച് സെറ്റ് ആക്കി അവരതു കുപ്പിലാക്കി വിൽക്കും ചിലപ്പോൾ ഒരു ലിറ്റർ കുപ്പിക്ക് അമ്പതു രൂപ അങ്ങനെ തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് അമ്മമാര് പിന്നെ നമ്മള് സാധാരണ വേനൽക്കാലത്താണ് പിന്നെ വേറൊരു പരിപാടി ഉള്ളത് ഈ സംഭാരം ഉണ്ടാക്കി വിൽക്കുന്ന പരിപാടി അതായത് നമ്മളെ മോര് പൂവിൻ്റെ മുളക് അങ്ങനത്തെ സാധനം ഇഞ്ചി അങ്ങനയുള്ള സാധനങ്ങൾ വെച്ചിട്ട് സംഭാരം ഉണ്ടാക്കും അത് ചിലപ്പോൾ ചിലർ കട്ടിയായിട്ട് ഉണ്ടാക്കും ചിലര് കുറച്ച് വെള്ളം കൂടുതൽ ഉള്ള രീതിയിൽ ഉണ്ടാക്കും അതീ വേനൽ കാലത്തു നല്ലൊരു പരിപാടിയാണ് ആ സമയത്തു നമുക്ക് അത്യാവശ്യം കച്ചവടം കാര്യങ്ങളും ഒക്കെ അതിൽ നിന്ന് കിട്ടാറുള്ളതാണ്